എനിക്ക് പൊതുവെ ഡാൻസിലും പാട്ടുകളിലും ഒക്കെ പങ്കെടുക്കാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടു തന്നെ ഞാനെല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു സാധാരണയായി ഞാൻ കളിച്ചിരുന്നത് ക്ലാസിക്കൽ ഡാൻസായിരുന്നു അവിടെയൊക്കെ സ്റ്റെയിജിലും മറ്റും ഞാൻ പെർഫോമൻസ് ചെയ്തിരുന്നത് ക്ലാസിക്കൽ രൂപത്തിലുള്ള നൃത്തമായിരുന്നു എന്നാൽ പിന്നീട് ഞാൻ ഹൈസ്കൂളിലേക്കെത്തിയപ്പോ ൾ അവിടെ ആർട്സിലും സ്പോർട്സിലോക്കെ വീണ്ടും പഴയതുപോലെ കൂടാൻ തുടങ്ങി അപ്പ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ സാധാരണയായി കളിക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് മാറ്റിവച്ച് ഹിപ്പോ പോലുള്ള വേറൊരു ശൈലിയിലുള്ള ഡാൻസ് ഞാൻ പഠിച്ച് എൻ്റെ സ്കൂളിൽ പെർഫോമൻസ് ചെയ്തു അന്നെനിക്ക് ഒരുപാട് കൈയ്യടികൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് കൈയ്യടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു